ഹലോ ഹലോ നമസ്കാരം ഹലോ ആരാണ് സംസാരിക്കുന്നത് ആ ഓക്കെ എനിക്ക് ഈ നമ്മുടെ ചർമ സംരക്ഷണത്തെ പറ്റി ഒന്ന് അറിയാനായിരുന്നേ എനിക്ക് അൻപത്തി ഏഴ് വയസ്സ് ആ നമ്മുടെ മുഖത്തൊക്കെ ഇടുന്ന ആ ഉണ്ട് ഉണ്ട് ആ ഓക്കെ ഓക്കെ ഓക്കെ

ഓക്കെ നമുക്ക് ഈ പകലൊക്കെ പുറത്ത് പോകുമ്പോഴേ ഈ സൺസ്ക്രീനുകൾ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ കണ്ണിൻറെ ചുറ്റിനുമുള്ള കറുപ്പ് നിറം മാറാനൊക്കെ എന്തെങ്കിലും ക്രീമുകളുണ്ടോ നമ്മൾ ഇതിൻ്റെ ഒക്കെ വില എങ്ങനെയാണെന്നൊന്ന് പറയുമോ ഓക്കെ ഓക്കെ ആ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ നമുക്ക് എല്ലാ ഷോപ്പുകളിലൊക്കെ കിട്ടുമല്ലോ അല്ലേ അവൈലബിൾ അല്ലേ ആ ഓക്കെ ഓക്കെ മോയിസ്റ്റുറൈസിങ്ങ് ക്രീം എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഓക്കെ ആ ഓക്കെ ലാക്മേയ്ക്ക് എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ഉണ്ടോ ഓക്കെ ഓക്കെ ആ ഈ ഓയിലി സ്കിന്നിനൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത് ക്രീമുകൾ വല്ലതും ഉണ്ടോ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ എല്ലാ ദിവസവും നമ്മൾ ഇത് യൂസ് ചെയ്യണോ ഓക്കെ കൊച്ച് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും നമുക്ക് പുറത്തിറങ്ങു ഓക്കെ ഹിമാലയയുടെ അ ജോൺസൺ ആൻഡ് ജോൺസണിൻ്റെ ഒക്കെ ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ടോ കുട്ടികൾക്ക് ഉപയോഗിക്കാറുണ്ടോ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യു